ഹലോ ഹലോ ഞാൻ ഗോകുലിൻ്റെ ടീച്ചർ ആണ് സംസാരിക്കുന്നത് നമ്മുടെ സ്കൂളിലെ സ്പോർട്സ് ഡേ ആണ് മറ്റന്നാൾ അപ്പം അതിനെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചത് സ്പോർട്സ് അതെല്ലോ അവനെ രണ്ട് ഐറ്റത്തിന് ചേർന്നിട്ടുണ്ട് അതായത് മറ്റേ ലോങ്ങ് ജമ്പിലുണ്ട് ഷോട്ട്പുട്ടിലുണ്ട് അപ്പോൾ രാവിലെ നേരത്തെ വരണം സ്കൂളിലേക്ക് അപ്പോൾ അതൊന്ന് നിങ്ങളെ ഓർമപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വിളിച്ചത് ഉം രാവിലെ നേരത്തെ സ്കൂളിലേക്ക് അയയ്ക്കണം ആ കാ ടിഫിൻ എടുക്കണം കാരണമെന്ന് വെച്ചാൽ അതെത്ര മണിക്ക് കഴിയുമെന്നൊന്നും പറയാൻ പറ്റില്ല ഒരു ഐറ്റം കഴിഞ്ഞ് മറ്റൊരു ഐറ്റം എപ്പോഴാണ് വരുക എന്ന് പറയാൻ പറ്റില്ല അപ്പോൾ ചിലപ്പോൾ വൈകുന്നേരം വരെ പോകും അപ്പം ഭക്ഷണം എടുക്കേണ്ടി വരും വെള്ളം ഭക്ഷണം എടുക്കേണ്ടി വരും പിന്നെ ലോങ്ങ് ജമ്പ് എല്ലാം ആയത് കൊണ്ട് അതിനനുസരിച്ചുള്ള ഡ്രസ്സും വേണ്ടി വരും ചിലപ്പം ഒരു ഷോർട്ട്സ് ഒക്കെ ഇടുന്നതാണെങ്കിൽ ക്ലാസ്സിൽ പൊതുവേ മോശമല്ല ആ ആ നല്ല മോശമല്ല ക്ലാസിലെല്ലാ ആ ആ എല്ലാ ശ്രദ്ധിക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ പോവുന്നുണ്ട് ആ വരുന്ന കാര്യങ്ങളൊക്കെ ആ ഡ്രസ്സ് വേണ്ടി വരും ഡ്രസ്സ് വേണ്ടി വരും ആ ഡ്രസ്സ് കൊണ്ടുവരേണ്ടി വരും പിന്നെ അതേപോലെ നിങ്ങൾക്കും വരാം കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ വരുന്നതാണെങ്കിൽ ആ വന്നിട്ട് വൈകുന്നേരം ആവുമ്പോഴത്തേക്ക് പോവാം ഏകദേശം ആ ന നാലഞ്ച് മണി വരെ പോവുമായിരിക്കും നാല് മണിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് ചിലപ്പോൾ അത് നീണ്ടിങ്ങനെ അഞ്ച് മണി വരെ ആവുമായിരിക്കും എന്നാലും പ്രശ്നമില്ല എത്രയും പെട്ടെന്ന് തുടങ്ങിയാൽ രാവിലെ നേരത്തെ തുടങ്ങിയാൽ നേരത്തെ തീർക്കാൻ പറ്റും നമുക്ക് അപ്പോൾ വീട്ടിലുള്ള രക്ഷിതാക്കൾക്കും വേറെ കാണാൻ വേണ്ടിയിട്ട് ഉം ആ കാണാൻ വേണ്ടിയിട്ട് വരാം ആ വരാം അല്ലേ ആ ആ മക്കളെയും കൂട്ടിയിട്ട് നാളെ കാണാൻ വേണ്ടിയിട്ട് വരാം ആ അതിന് അതിലെല്ലാം നല്ല താല്പര്യമുണ്ട് ആ പക്ഷേ ആ നല്ല താല്പര്യമുണ്ട് താല്പര്യമുള്ളതല്ലേ ഗെയിംസ് പക്ഷേ ഇപ്രാവശ്യം വെച്ചിട്ടില്ല സ്പോർട്സ് മാത്രമേ ഉണ്ട വെച്ചിട്ടുള്ളൂ ആ ഗെയിംസ് പക്ഷേ വെച്ചിട്ടില്ല അതുകൊണ്ടായിരിക്കും പറയുന്നുണ്ടായിരുന്നു കുട്ടികൾ ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു ഗെയിംസ് വേണമെന്ന് പക്ഷേ അത് ഇപ്രാവശ്യം വെച്ചില്ല ശരി